ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരത്തി നാന്നൂറ്റി മുപ്പത് ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി നാന്നൂറ്റി മുപ്പത് നാല് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറ് എട്ട് ലക്ഷത്തി അറുപത്തൊൻപതിനായിരത്തി നാന്നൂറ്റി അൻപത്തി രണ്ട്